അതെ പെരിയ തേയിലേൻ്റെ ഓഫീസാണ് ആരാണ് സംസാരിക്കുന്നത് നിങ്ങൾക്കെന്താണ് അറിയേണ്ടത് ഓ തീർച്ചയായും ഞങ്ങളിവിടെനിന്ന് ഹോൾസെയിലായിട്ടും റീട്ടെയിലായിട്ടും ചായപ്പൊടി കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ഞങ്ങൾ കൊടുക്കും നിങ്ങൾക്കെന്തൊക്കെയാണ് അറിയേണ്ടത് ആ ഞങ്ങളുടെ ഫാം ഞങ്ങളുടെ കമ്പനിയുടെ ചുറ്റുമുള്ള തോട്ടത്തിൽ തന്നെയാണ് ഞങ്ങൾ തേയില എടുക്കുന്നത് ഞങ്ങൾക്ക് വേറെയും പല തോട്ടങ്ങളുണ്ട് പക്ഷേ ഇവിടുത്തെ പ്ലാന്റിലുള്ള പ്ലാന്റിനാവശ്യമുള്ളത് ഇവിടെ നിന്ന് തന്നെയാണ് ഞങ്ങളെടുക്കുന്നത് ഇതിനായിട്ട് ഞങ്ങൾക്കിവിടെ സ്ഥിരം ജോലിക്കാരും ഉണ്ട് ആ ഞങ്ങളിവിടെ സാധാരണ നമ്മുടെ ചായപ്പൊടി ഗ്രീൻ ടീ ഇല ചായ മസാല ചായ ഇതൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ടും പോകുന്നത് നിങ്ങൾക്ക് ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഞങ്ങളൊരുപാട് വർഷമായി ഈ ടീ ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങിയിട്ട് കേരളത്തിലെ ചായപ്പൊടി മാർക്കറ്റിൽ തന്നെ നല്ലൊരു സ്ഥാനം ഞങ്ങൾക്കുണ്ട് കാരണം മായം ചേർക്കാത്ത ചായപ്പൊടിയാണ് ഞങ്ങൾ കൊടുക്കുന്നത് കസ്റ്റമേഴ്സിനോട് നൂറ് ശതമാനം ആത്മാർത്ഥത കാണിക്കുന്നുണ്ട് അതിനനുസരിച്ച് ഞങ്ങൾക്ക് ഓർഡർ കിട്ടുന്നുണ്ട് അന്നേരത്തേക്കും പ്രൊഡക്ഷനും കൂടുന്നുണ്ട് അതിലൊന്നും നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട ഞങ്ങൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും സാധനങ്ങളെത്തിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കെങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ തരാം പക്ഷേ ആദ്യത്തെ തവണ ആവുമ്പോൾ നിങ്ങൾ ഒന്ന് കമ്പനിയിൽ വന്ന് ഞങ്ങൾക്കൊന്ന് നേരിട്ട് സംസാരിക്കാം അതല്ലേ ശരി ഞങ്ങൾക്കിപ്പം റീട്ടെയിലായിട്ട് കൊടുക്കുന്നതിനേക്കാളും കുറഞ്ഞ പൈസയിലാണ് നിങ്ങൾ ഹോൾസെയിലായിട്ടെടുക്കുമ്പോൾ കൊടുക്കുന്നത് പിന്നെ അതിൽകൂടുതൽ കുറയ്ക്കുകയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് കമ്പനിക്ക് നഷ്ടമല്ലേ എന്തായാലും നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഓക്കെ തീർച്ചയായും